ആ ഇത് സ്കൂളിലെ പ്രിൻസിപ്പിൾ അല്ലേ ആ മേഡം ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെ ചേർക്കുന്നതിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടീട്ടായിരുന്നു

ഒരാൾ എൽ കെ ജിയിലും ഒരാൾ സെക്കൻഡ് സ്റ്റാൻഡേർഡും അപ്പം ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഓക്കെ ആ ഓക്കെ ആ ഫീസ് അടച്ചാൽ മതി ആ

പേയ്മെൻറ്റ് നമ്മളെ ആ

ഒരു ആണും ഒരു പെണ്ണും ആണ് ആ വാങ്ങിയതാണ് അതിപ്പോൾ അവർ വേറെ സ്കൂളിൽ ആക്കിയതായിരുന്നു അപ്പോൾ രണ്ടുപേരെയും ഒന്നിച്ച് ആക്കാൻ വേണ്ടീട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഓക്കെ

ഇല്ല നമുക്ക് ബസ്സ് തന്നെ ആയിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഓക്കെ ഓക്കെ

ആയിക്കോട്ടെ മേഡം എന്നാൽ ഞാൻ നാ തിങ്കളാഴ്ച്ച ആയിട്ട് വരാം

ആ ആ